ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികൾ എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ അതായത് പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഏർ ഏർപ്പെടാറില്ല കാരണമെന്ന് വച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും ഈ ഫോണിന് അഡിക്റ്റ് ആയതുകൊണ്ട് റീല് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും കുട്ടികളെന്ന് പറഞ്ഞാൽ ചെയ്യുക അവര് ഒരു പണിയെടുക്കാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താ പറയുക ഇപ്പം കായിക വിനോദം എന്നുപറഞ്ഞാൽ ഇപ്പം ഓടാനും ചാടാൻ ഒന്നും അവര് നിക്കാറില്ല അവർക്ക് ഒന്നാമത് മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ടും പിള്ളേര് ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നിനും അങ്ങനെ പങ്കെടുക്കാറില്ലെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അത് ഇവർക്ക് ആരോഗ്യ ആരോഗ്യപ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ട് അതായത് ഇപ്പം ഒരു നമ്മൾ ഇപ്പോൾ ഒരു ഓട്ടത്തിനോ ചാട്ടത്തിന് ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലും കയ്യും ഒക്കെ നല്ല രീതിയിൽ വളർച്ച ഇപ്പോൾ എന്താ പറയുക ഓടാനും ചാടാനും ഒക്കെ നല്ല രീതിയിലുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു കുട്ടികളൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടവും ചാട്ടവും ഒരു പരിപാടിയിലും ഏർപ്പെടാറില്ല അപ്പം എന്താ പറയുക ഇപ്പോൾ ആരോഗ്യമുള്ളവനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പിള്ളേര് നല്ല രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്